ഹലോ വയനാട് ട്രാവൽ ഏജൻസി അതെ അതെ ആ ആ ആ ഓക്കെ

ആ ആ നിങ്ങൾക്ക് ഇവിടെ പാക്കേജ് വരുന്നത് പൂക്കോട് അതുപോലെ പടിഞ്ഞാറേത്തറ പിന്നേ കു കുറുവാ ദ്വീപ് സൂചിപ്പാറ പിന്നെ പടിഞ്ഞാറേത്തറ ഡാമ് ഇതൊക്കെയാണ് അപ്പോൾ ഒരു ഇത് ഇതല്ലാ ഒരു രണ്ട് മൂന്ന് സ്ഥലം കൂടുണ്ട് ഞാൻ പാക്കേജ് പിന്നെ പറഞ്ഞ് തരാം അപ്പോൾ ഈ ഒരു ഇത്രേം സ്ഥലങ്ങളാണ് നിങ്ങൾ എപ്പോഴാണ് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ആ ആണോ അപ്പോൾ എത്ര ആൾക്കാരുണ്ടാകും അഞ്ചാൾ ഉണ്ടാകും ആ ആ പിന്നെ അപ്പോൾ ഇവിടിപ്പോൾ ഇനി മാ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിലെന്ന് പറയുമ്പോൾ മഴയൊക്കെ പെയ്യുന്നതാണെങ്കിൽ ചില സ്ഥലത്ത് പോകാൻ പറ്റൂലാ എന്താന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്യുന്നത് പുഴകളിലൊക്കെ വെള്ളം കൂടുന്നോണ്ട് അതുകൊണ്ട് തന്നെ പോകാൻ പറ്റൂലാ അങ്ങോട്ടേക്ക് കെ അതൊന്നും പൂട്ടീട്ടില്ല പൂട്ടിയിട്ടിട്ടുണ്ടാവും അന്നേരം ഇനിയിപ്പോൾ പടിഞ്ഞാറേത്തറ ഡാമിൽ പോകാൻ പറ്റും പിന്നതുപോലെ സൂചിപ്പാറയിൽ ചിലപ്പോൾ പോകാൻ പറ്റൂലാ എന്നാലും കുഞ്ഞ് പ്രദേശമാണല്ലോ അപ്പം നല്ല കുത്തിയൊഴുക്കുന്ന മഴയൊക്കെയാണങ്കിൽ വെള്ളം വെള്ളമൊക്കെ ഉണ്ടാകുന്നത്കൊണ്ട് അങ്ങോട്ട് കയറ്റില്ല അതോണ്ട് കുറച്ച് സ്ഥലമായിട്ട് ഉണ്ടാവുള്ളൂ വന്നിട്ടൊന്ന് നോക്കാം പാക്കേജ് ഒന്ന് നോക്കട്ടേ പിന്നെ വി ആ വണ്ടി സൗകര്യം എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങടെ റേ റേറ്റിനനുസരിച്ച് ഞാൻ റേറ്റ് പറയാം പാക്കേജിൻ്റെ ഏതാ എന്തൊക്കെയാണ് റേറ്റ്ന്നൊക്കെ ഞാൻ പറയാം പിന്നെ ഫുഡ്ഡുണ്ടാവുട്ടോ ഫുഡ്ഡ് ആ ഫുഡ്ഡുണ്ടാവും ഫുഡ്ഡ് ഞങ്ങൾ അവിടെ തന്നെയുണ്ടാവും പിന്നെ അത് ഏതു തരം ഫുഡ്ഡാന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നോൺ വെജ്ജോ വെജ്ജോ ഇനി എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഒന്നൂടെ ഇനിയിപ്പോൾ ഇത് കൺഫേം ചെയ്യുമ്പോൾ ഒന്നൂടെ പറഞ്ഞാൽ മതി ഞങ്ങളവിടെ അറേഞ്ച് ചെയ്യാം പിന്നതുപോലെ നിങ്ങളുടെ റേറ്റ് ഞാൻ പറയാം ഏതൊക്കെ സ്ഥലങ്ങളാന്ന് നോക്കീട്ട് ഞാൻ പറയാം പിന്നെ വേറെന്താ

ആ ആ ആ എന്നാൽ ആ ഞാനിതൊന്ന് ഒന്നൂടെ നോക്കീട്ട് ഞാൻ വിളിക്കാം